ഇരുപത്തി മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പതിനാറ് നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഇരുപത്തി എട്ട് അഞ്ച് രണ്ടായിരത്തി ഏഴ് ഒൻപത് മൂന്ന് രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്ന് പത്ത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാല്